എൻ്റെ ഓർമ്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ജനുവരി പതിനൊന്ന് അന്നെൻ്റെ ജനന തിയതിയാണ് ജൂൺ ഇരുപത് അന്നെൻ്റെ ഹസ്ബൻഡിൻ്റെ ജനന തിയതിയാണ് മെയ് മുപ്പത്തിയൊന്ന് എൻ്റെ മൂത്ത മകളുടെ ജനന തിയതിയാണ് ഏപ്രിൽ ഇരുപത്തി രണ്ട് എൻ്റെ ഇളയ മകളുടെ ജനന തിയതിയാണ് പിന്നെ ജനുവരി പതിനൊന്ന് അന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികദിനമാണ്